ഹലോ ഇത് പാറയിൽ ഹോട്ടൽ ആണോ അവിടെ എന്നാ ഒക്കെയുണ്ട് ഫുഡ് നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ്

ആ പൊറോട്ട ഒന്നും ഇല്ലേ പൊറോട്ട അതായത് ആ നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിക്ക് വേണ്ടിയാണേ നമുക്കൊരു അഞ്ച് പേരോളം ഉണ്ടേ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമുക്ക് പൊറോട്ടയും വേണം ഊണും വേണം അപ്പോൾ പൊറോട്ട നമുക്ക് പുതിയത് നല്ലത് കിട്ടാൻ പറ്റുമോ അതോ ഇനി പഴയത് എടുത്ത് ചൂടാക്കാനോ ഞാൻ അഞ്ച് പേർക്ക് ഞങ്ങൾക്കൊരു മൂന്നെണ്ണം വെച്ച് പതിനഞ്ച് പൊറോട്ടയും വേണം അഞ്ച് പേരുടെ ഊണും വേണം ഊ ആ പൊറോട്ടയ്ക്ക് മറ്റേ നമ്മുടെ താറാവിറച്ചി ഉണ്ടോ ആ താറാവിറച്ചി പൊറോട്ടയ്ക്ക് താറാവിറച്ചി മതി പിന്നെ ഊണിന് ഊണിന് എന്നാ ഒക്കെയുണ്ട് കറി ഊണിന് സ്പെഷ്യൽ മി ഇത് സ്പെഷ്യൽ സ്പെഷ്യൽ അല്ലാതെ നമുക്ക് ഊണിന് എന്നാ ഒക്കെ കറിയുണ്ട് ആ ആ അത്രയും കറിയുണ്ട് അപ്പോൾ പിന്ന മോരൊക്കെ കാണുമല്ലോ അല്ലേ മോര് കാണുമല്ലോ ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ സ്പെഷ്യൽ ആയിട്ട് ബീഫ് ഫ്രൈയും വേണം ചെമ്മീൻ റോസ്റ്റോ അങ്ങനെ വല്ലതും ഉണ്ടോ ചെമ്മീനോ ഞണ്ടോ അങ്ങനെ വല്ലതും ആണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അതായത് ചെമ്മീൻ റോസ്റ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ എടുക്കണേ മീൻ ഫ്രൈ മീൻ ഫ്രൈ മീൻ ഫ്രൈ അഞ്ച് പേർക്കുള്ള മീൻ ഫ്രൈയും വേണം നിങ്ങളുടെ ഹോട്ടലിലെ ഫുഡ് നിങ്ങളുടെ ഹോട്ടലിലെ ഫുഡ് ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്യാൻ പോലും വന്നത് അതുകൊണ്ട് ആ അതുകൊണ്ട് നല്ല നല്ല നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി തരണം കേട്ടോ ആ അഞ്ച് പേർ ഉണ്ട് അഞ്ച് പേർക്കും കൂടെ കൂടെ ഉള്ളത് കാരണം ആർക്കും തികയാതെ ഒന്നും ഇരിക്കല്ല് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ ഇത് നിങ്ങൾ എ എങ്ങനാ സാധനം നിങ്ങൾ വീട്ടിൽ എത്തിച്ചു തരുമോ അതോ എന്താണെന്ന് വേച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ആ പ ആ പ്ര പറ പറയാം പിന്നെ പ്രായമായവർ ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് അധികം എരിവും ഒന്നും ഇല്ലാതെ ഒക്കെ ഉണ്ടാക്കി തരണേ നല്ല രീതിയിൽ ഉണ്ടാക്കി തരണം അവർക്ക് പ്രായം ആയവർക്കൊക്കെ കഴിക്കത്തക്ക രീതിയിൽ എപ്പ ഹോ ഓക്കെ അപ്പോൾ ഹോം ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ പൈസ വല്ലതും വരുമോ ഫ്രീ ഡെലിവറി ആണ് ചൂടൊക്കെ പോകാതെ നല്ല രീതിയിൽ ചൂടോടുകൂടി തന്നെ സാധനം നമുക്ക് കവർ ചെയ്ത് എത്തിച്ച് തരണം കേട്ടോ പേപ്പർ പേനുള്ള ഫുഡ് കഴിക്കാനുള്ള പേപ്പർ പ്ലെയ്റ്റും ഗ്ലാസും എല്ലാം കൊടുത്തു വിടണം വെള്ളവും കുടിക്കാനുള്ള വെള്ളവും എല്ലാം കൊടുത്തു വിടണം ആ കൂട്ടത്തിൽ കേട്ടോ പൈ ബിൽ ബിൽ എത്രയായി ബില്ലും കൂടെ പറയുമോ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ ആ ഗൂഗിൾ പേ ചെയ്യാനായി നിങ്ങളുടെ നമ്പറും കൂടി അതിനകത്ത് ആഡ് ചെയ്തേക്കുമോ മൊബൈലിലേക്ക് ഒന്നും വേണ്ട ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു